ഏഴ് ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ്ററുവത്തേഴ് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് രണ്ട് ലക്ഷത്തി മൂവായിരത്തി പന്ത്രണ്ട് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ്റൻപത് മൂന്ന് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി പന്ത്രണ്ട്